ആ ലൈറ്റ് ബൾബാണ് ഞാൻ ഇവിടെ പോസിറ്റീവ് റിവ്യൂ പറയാൻ പോകുന്ന പ്രോഡക്റ്റ് ലൈറ്റ് ബൾബ് എന്ന് പറയുന്നത് നമുക്കൊരു ബൾബ് ചെറിയൊരു വസ്തുവിൽ നിന്നാണ് നമുക്ക് വലിയൊരു പ്രകാശം നല്കാൻ ഉപയോഗിക്കുന്നത് അത് തന്നെ ഒരു വലിയ കാര്യമാണ് നമുക്കത് അല്ലെങ്കിൽ വളരെ നമുക്ക് ഡെയിലി ലൈഫിൽ ഏറ്റവും അധികം യൂസ് ഫുള്ളായിട്ടുള്ളൊരു വസ്തുവാണ് ഈ ലൈറ്റ് ബൾബ് എന്ന് പറയുന്നത് ഈ ലൈറ്റ് ബൾബ് ഇല്ലാതെ നമുക്ക് ഇപ്പം ലൈറ്റ് ബൾബില്ലാതെ നമുക്കിപ്പം നമ്മളൊരു ലൈഫിൽ മുന്നോട്ട് പോകാൻ എളുപ്പമല്ല പ്രകാശം എപ്പോഴും നമുക്ക് വേണ്ട ഒരു വസ്തുവാണ് അതിന് ഏറ്റവും ഉപകാരപ്പെടുന്നതാണ് ഈ ലൈറ്റ് ബൾബ് ചെറിയൊരു സബ്സ്റ്റൻസ് എന്ന് വലിയ ഒരു വലിയ ഒരു പ്രകാശമാണ് നൽകുന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മെയിൻലി വർക്കിങ്ങ് ടൈം എന്ന് പറയുന്നത് എണ്ണായിരം അവേഴ്സ് ടു പതിനഞ്ചായിരം അവേഴ്സ് വരെയാണ് മെയിൻലി ഒരു വർക്കിങ്ങ് ടൈം ഓഫ് പീരീഡ് ഇതിന് കൊടുക്കുക വേറെ കുറേ കമ്പനീസ് ഇതിനും കൂടുതൽ കൊടുക്കുന്നുണ്ട് എന്നാലും ഇനിയും പ്രോബബിളി ആവറേജ് കൊടുക്കുന്നത് ഇത് മാത്രം ഇത്ര അവേഴ്സാണ് പിന്നെ ഇത് പെട്ടെന്ന് നമുക്ക് ഇപ്പം കേടായാൽ തന്നെ പെട്ടെന്ന് നമുക്കത് ഊരി വീണ്ടും വേറെ ഒരെണ്ണം വീണ്ടും പുതിയതായിട്ട് വീണ്ടും വയ്ക്കാൻ നമുക്ക് പെട്ടെന്ന് ഈസി ആണ് പിന്നെ നമുക്ക് പിന്നെ ഈ ബൾബിൽ തന്നെ ലൈറ്റ് ബൾബിൽ തന്നെ കുറേ വേരിയേഷൻ ബൾബുകൾ ഇറങ്ങുന്നുണ്ട് എൽ ഇ ഡി ബൾബ് ഇറങ്ങുന്നുണ്ട് പിന്നെ ഫിലമെൻ്റ് ബൾബ് ഇറങ്ങുന്നുണ്ട് അപ്പം എൽ ഇ ഡി ബൾബ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടി സേവ് ചെയ്യാൻ എനർജി സേവ് ചെയ്യും ഫിലമെൻ്റ് പറഞ്ഞാൽ കുറച്ചും കൂടി എനർജി യൂസ്ഫുൾ ആവും പക്ഷേ എല്ലാ ബൾബുകളൂം നമുക്ക് യൂസ്ഫുൾ ആണ് പിന്നെ എനർജി എന്നാൽ നമുക്ക് നല്ലൊരു വെളിച്ചം നൽകുന്ന ഒരു സംഭവമാണ് എൽ ഇ ഡി ബൾബ്സ് എന്ന് വച്ചാൽ ലൈറ്റ് ബൾബ്സ് അതുകൊണ്ട് ലൈറ്റ് ബൾബ്സിന് പ്രോഡക്റ്റ് റിവ്യൂ ഇത്ര മാത്രമാണ്